കോഴി വളർത്തൽ നല്ലത് തന്നെയാണ് ഒത്തിരി നല്ല പൈസയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ആൾക്കാർക്ക് കൂടുതലും കോഴിയിറച്ചിയോടാണ് താൽപര്യം കാരണം പെട്ടന്നൊക്കെ വല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ പിന്നെ താറാവ് ഇഷ്ടമാണെങ്കിലും പിന്നെ കോഴിയോടാണ് എല്ലാവർക്കും ഭയങ്കര താൽപര്യം വളർത്താനൊക്കെ എളുപ്പമാണ് പക്ഷേങ്കിൽ ചില സമയങ്ങളിൽ വല്ല പനിയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള നഷ്ടങ്ങളെയുള്ളൂ അല്ലെങ്കിൽ നല്ല ലാഭമുള്ള കച്ചവടം തന്നെയാണ് സസ്യാഹാരമൊന്നും ഈ ബിസിനസിനെ അധികം ബാധിക്കത്തില്ല കാരണം ഇപ്പോഴത്തെ ഇതിൽ എല്ലാവർക്കും കോഴിയോടും ഒക്കെയാണ് താൽപര്യം സസ്യാഹാരം കഴിക്കുന്നെങ്കിലും കോഴിയിറച്ചിയൊക്കെ കൂട്ടാനാണ് മറ്റുള്ളവർക്കൊക്കെ മറ്റുള്ളവരങ്ങനെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അത് പെട്ടെന്ന് കഴിക്കാനുള്ള താൽപര്യത്തിലതൊക്കെ തന്നെയാണ് നല്ലത് അതുകൊണ്ട് സസ്യാഹാരം കഴിക്കായ്കയല്ല കഴിക്കുന്നതൊക്കെയുണ്ട് താൽപര്യം അതാണ് ഇപ്പോഴത്തെ പിള്ളാർക്കാണെങ്കിലും കോഴിയിറച്ചിയോടാണ് കൂടുതൽ താൽപര്യം പിന്നെ സസ്യാഹാരമൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല സസ്യാഹാരം ഈ കോഴി വളർത്തലിനെ ബാധിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ ആവശ്യത്തിന് കിട്ടാൻ അവർക്ക് താൽപര്യമേയുള്ളൂ